ഫോട്ടോഗ്രാഫിയുടെ എൻ്റർടൈൻമെൻ്റെന്നു പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഫോട്ടോ നമ്മൾ മാത്രം എടുക്കുന്നില്ലല്ലോ കുറേ വേറെ ആൾക്കാർക്കും നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള എന്താ ഇങ്ങനെ ഫോട്ടോ എടുത്തു കുറേ കമ്പനി കിട്ടാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വഴിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ബ്രോ ഒരു ഫോട്ടോ എടുത്തു തരുമോയെന്ന് ചോദിക്കും ഞാൻ ഫോട്ടോ എടുത്തുകൊടുക്കും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പേരെന്താ ഏതു ബാച്ചാണ് ഏതു ഡിപ്പാർട്ട്മെൻ്റാണ് എന്നൊക്കെ ചോദിക്കും പെങ്കൊച്ചാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും ചോദിക്കും അതു വേറെ വിഷയം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ കുറേ കമ്പനികൾ കിട്ടും നമുക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെന്നൊക്കെ പറയുമ്പോൾ ഈ ആനിമൽസിൻ്റെതെടുക്കും പിന്നെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോഗ്രാഫിനെക്കാളും എക്സ്പ്ലോർ ചെയ്യാം കുറേ ഇങ്ങനെ നേച്ചറും ആനിമൽസ് ഒക്കെ കാണുന്ന അത് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പുതിയ പുതിയ മൃഗങ്ങളെ കാണും പുതിയ മൃഗങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും പിന്നെ നമ്മൾക്കൊരു ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് കൊള്ളാം ഇത് കൊള്ളാമെന്നു പറയുമ്പോൾ നമുക്കൊരു ഹാപ്പി ഹാപ്പി ആയിരിക്കും എല്ലാവരും ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ എന്തോ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ നീ കൊള്ളാം ഇപ്പോൾ ഒരു നമ്മുടെ തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണ് നീ കൊള്ളാം ലുക്കുണ്ട് ഇങ്ങനെ എന്താ ഈ ഷർട്ട് കൊള്ളാം പാൻ്റ് കൊള്ളാം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു അതൊരു സമയത്ത് നല്ലൊരു സന്തോഷമായിരിക്കും പിന്നെ അതു കഴിഞ്ഞിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെന്നു പറയുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കൊരു ഹാപ്പിയായിരിക്കും പുള്ളിക്ക് ആനിമൽസിനെ എടുക്കുമ്പോൾ അത് അവരുടെ വേറൊരു ഫീലിങ്ങാണ്